ഹലോ ആ ആ ഞങ്ങൾക്ക് ഒരു കേക്ക് വേണമായിരുന്നു ഞങ്ങൾക്ക് കേക്ക് വേണ്ടത് ഒരു ഒരു കിലോ കേക്ക് വേണം ആ ഞങ്ങൾക്ക് വേണ്ടത് ക്ക് പിന്നെ ബർത്ത്ഡേക്ക് മുറിക്കുന്ന കേക്ക് ആണ് ആ അതെ അതെ അതെ

ആ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഒരു കിലോയുടെ വലിയ നമ്മുടെ ക്രീം കേക്ക് ഒക്കെ പോലത്തെ

ഒരു കിലോ അയ് എത്രയാവും ഞങ്ങൾക്ക് നാളത്തേക്ക് വേണം നാളത്തേക്ക്

എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ കൂട് എന്തോ ആ ഒരു കിലോയുടെ കേക്ക് ആണ് എണ്ണൂറ് രൂപ കൂടുതൽ അല്ലേ ഭയങ്കര ചാർജ് അല്ലേ ആ നല്ല രീതിയിൽ വേണം അത് റേറ്റ് ഒക്കെ ഞങ്ങൾക്കൊക്കെ സാധാരണ കുറച്ച് തരും

ആ ആയിക്കോട്ടെ എന്നാൽ ആ ഏ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണോ എണ്ണൂറ് രൂപ പറഞ്ഞത് അയ്യോ ഈ ഞങ്ങൾ സാധാരണ മേടിക്കുമ്പോൾ അറുനൂറ് രൂപ ഒക്കെ ഉള്ളല്ലോ അര കിലോ അല്ല ഞങ്ങൾ ഒരു കിലോ ആണ് അത് മേടിക്കുന്നത് അര കിലോയ്ക്ക് മുന്നൂറ് രൂപ ഒക്കെ ആവുള്ളൂ ഒരു കിലോ എടുക്കുമ്പം ഒന്ന് ഇത് സാധാ പത്ത് ഇരുനൂറൊക്കെയാണ് എഴുനൂറ്റമ്പത് എഴുനൂറ് രൂപയാവും അവർ കുറച്ചൊക്കെ തരും ആ നമ്മൾ തൂക്കി നോക്കുന്നില്ല പക്ഷേ അതല്ല നമുക്ക് അറിയാമല്ലോ കേക്ക് എടുക്കുമ്പം പിന്നെ അത് ഒരു ഒരു കിലോ ആ കള്ളത്തരം പറയില്ലല്ലോ സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ ആ ആ

അത്രേയുള്ളൂ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ നമ്മൾ ആ

ആ ഞങ്ങൾ വരാം എടുക്കാനായിട്ട് വരാം റെഡി ആവുമ്പം അപ്പം എപ്പോൾ എത്ര മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഞങ്ങൾ അവിടെ വരാം ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ ആ നാളത്തേക്ക് നാളത്തേക്ക് നാളെ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേന് വരാം

പിന്നെ തീർച്ചയായിട്ടും ആ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം ഇല്ലാതെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി പോവില്ലേ ഓ ആ ആ ആ ആ ആ ആ അത് ശരിയാണ് അത് ശരിയാണ് അതാണ് അതല്ലെങ്കിൽ വേ ആ അതെ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോവും പിന്നെ തീർച്ചയായിട്ടും ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ വില കുറച്ച് തന്നതിന് താങ്ക്സ് ഓ ഓ ആ ശരി ശരി ശരി